ആ പറയൂ ആരാ ആ പോവാം പോവാം പോവാം എവിടേക്ക് ആയിരുന്നു പറഞ്ഞത്

ആ ശരി ശരി പോവാം ആ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഒന്നര മണിക്കൂർ മതിയാവും ആ അത് ഇപ്പം ഇവിടെ നിന്ന് നേരെ അമ്പാട് അമ്പാട്ടിൽ നിന്ന് നേരെ കണ്ണനൂർ കണ്ണനൂരിൽ നിന്ന് എൻ എച്ച് വഴി പിടിച്ചിട്ട് അത് കാഴ്ചപ്പറമ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് മണപ്പുള്ളിക്കാവ് എത്തണതിന് മുമ്പ് ഒരു പാലം ഉണ്ട് ആ പാലത്തിൻ്റ അവിടെ നിന്ന് പാലത്തിൻ്റ അവിടെ നിന്ന് സിഗ്നല് പാലം കയറാണ്ട് താഴത്തുകൂടി തന്നെ ഇടത് ഭാഗത്തുകൂടി തിരിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വലത് ഭാഗത്തൊരു മാൻഹോൾ വരും ആ മാൻഹോള് അവിടെ നിന്ന് കാടാംകോടിൽ നിന്നും കാടാംകോടെന്നാണ് പറയുക അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേയ്ക്ക് പോയിക്കയിഞ്ഞാൽ കാടാംകോട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബ അമ്പലം അവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അത് എത്തണതിന് മുമ്പ് ഒരു മൂന്ന് വളവ് ഉണ്ട് ആ അതു കഴിഞ്ഞിട്ടുള്ള അമ്പലം ആണ് വലതു ഭാഗത്ത് വരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആ അവിടെ മുരുകൻ്റെ അമ്പലം അവിടെയാണ് നമ്മൾ ഇപ്പം ഫേമസ് ആയിട്ട് ആ

ഓ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് എനി അവിടുത്തെ ഗ്രാമത്തിൽ തന്നെ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ആ അവിടെത്തന്നെയാണ് ഇപ്പം പഴനിക്ക് പോകുന്ന ആളുകളൊക്കെ മൊട്ട അടിക്കുന്നതും മിനി പഴനി പഴനിമല ആണ് പഴനി ആണ് ഈ ക്ഷേത്രം ആ എന്നാലും പഴനിയിൽ മൊട്ട അടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ പോകുമല്ലൊ ആ അതിൻ്റെ ഒരു മിനി അമ്പലം ആണ് ഇവിടെ ഇവിടെ നിന്നും ഇവിടെയും പഴനിക്ക് പോകുവാൻ പറ്റാത്ത ആളുകളൊക്കെ ഇവിടെ ആണ് മൊട്ട അടിക്കാറ് ഇവിടെ എല്ലാ ദിവസവും അതിനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബാക്കിൽ തന്നെ പുഴയും നല്ല വലിയ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കിലോമീറ്ററ് അകത്തെ വരൂള്ളൂ അപ്പം പോയി വരാൻ ഒരു രണ്ടായിരം രൂപ ആവും ആ ഈ സമയത്ത് ഇല്ല രാവില രാവിലെ നാലു മണിക്ക് നട തുറക്കും വൈകുന്നേരം ഒരു അഞ്ച് മണി ആറു മണി ആ സമയം വരയേ ഉണ്ടാവുള്ളൂ ആ അതെ

ഇല്ല ഇല്ല ആ നമ്മൾ ഓ വെയ്റ്റ് ചെയ്യാം വെയ്റ്റ് ചെയ്യാം കുഴപ്പം ഇല്ല

അതിന് എന്താണ് നമ്മൾ പോകാമല്ലോ ഓ പോവാം പോവാം ഓ റെഡി എന്നാൽ